യോഗ പരിശീലിക്കാൻ വരുന്ന ആൾക്കാര് എപ്പോഴും ആ പഠിപ്പിക്കുന്ന ആ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ അത് ചെയ്യാമാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു യോഗ സ്വന്തമായി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ അതിനെ കാണരുത് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ് അത് അറിയാവുന്ന അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ചവർക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒപ്പം തന്നെ ഈ യോഗ അഭ്യാസം മൂലം ഈ ആരാണോ ഈ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളിന് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും അവരുടെ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ലങ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല നല്ല പ്രയോജനം ഉണ്ടാകും അതേപോലെതന്നെ ആരോഗ്യം നല്ലതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും നല്ല ഒരു പലകാര്യങ്ങളിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാകുന്ന പല ടെൻഷൻ ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലാത്ത മോശമായിട്ടുള്ള എല്ലാ ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് മോചനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെതന്നെ ഇതൊരു നല്ല എക്സസൈസ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല ഗുണം ഇത് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും സ്വന്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാതെ ഒരു അറിവുള്ള നല്ല ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ല ഒരു ട്രെയിനറുടെ അടുക്കൽ മാത്രമേ നമ്മള് ഒരു യോഗ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് നമ്മൾ പോകാൻ പാടുളളു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം